അബ്ദുൾ ഷെഹാന മുക്കം ആ അതെ എനിക്കൊരു ആ പുതിയൊരു ഫോൺ വാങ്ങാനായിരുന്നു ഒരു പതിനഞ്ചിലേക്ക് ഒതുങ്ങുന്നത് രീതിയിലുള്ള ഒരു ഫോൺ ആണ് ഇത് ഇപ്പോൾ ഏത് സെറ്റ് ആണ് വരുന്നത് അ ആ അ ആ

അ ആ എന്നാൽ ഇ എം ഐ വഴി എടുക്കാൻ പറ്റുവോ എന്ന് നോക്കാം ആ അതെ ഇപ്പോൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത് ആ അതെ ആ അതിപ്പോൾ കംപ്ലൈൻറ്റ് ആയി ഒ പുതിയതൊന്ന് എടുക്കണമെന്നുള്ള രീതിയിലായിരുന്നു അ ആ ആ അതെ ആ ആയിക്കോട്ടെ ആ ആ അ ആ ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ അ ആ അ ആ അ ആ

അ ആ

അ ആ ആ ആ എന്നാൽ ആയിക്കോട്ടെ